ഇതൊരു ഗ്രാമപ്രദേശമായത്കൊണ്ട് ഇവിടൊരുപാട് പക്ഷികൾ വരാറുണ്ട് ഞാനിവിടെ പാടത്തും പറമ്പിലക്കെ നോക്കുമ്പോൾ പല തരത്തിലുള്ള കൊക്കുകൾ കാക്ക കൊളക്കോഴികൾ തത്തകൾ മൈനകൾ ഇരട്ടതലച്ചി മരം കൊത്തി തേൻകുരുവി അങ്ങനെ ഒരുപാട് പക്ഷികളക്കെ ഇവിടെ വരാറുണ്ട് പ്രധാനമായിട്ട് ഞാൻ കൊക്കുകളെയോക്കെ നോക്കാറുണ്ട് ഇവിടെ പാടം അടുത്തായത് കൊണ്ട് പല തരത്തിലും അതായത് കളറിലും അതിൻ്റെ വലിപ്പത്തിലൊക്കെ വ്യത്യാസമുള്ള കൊക്കുകളക്കെ വരാറുണ്ട് ഇവിടെ വിതക്കുന്ന സമയത്തും കൊയ്യണ സമയത്തക്കെ അതുപോലെ തത്തകളും കൊയ്യണ സമയാവുമ്പോൾ തത്തകളും എത്താറുണ്ട് പിന്നെ മറ്റൊരു പക്ഷിയാണ് ഇരട്ടത്തലച്ചി അതും ഞാൻ ഇടക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് മനുഷ്യവാസമുള്ള സ്ഥലത്തേക്കത് വരും അതിന് അത്രക്ക് പേടിയൊന്നൂല്ല നമ്മുടെ മിറ്റത്തുള്ള ചെറിയ ചെടിയിലോ വൃക്ഷത്തിലോ അതൊന്ന് കൂട് കൂട്ടീട് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ പറക്കാറാകുമ്പോൾ അത്ങ്ങളെ കൊണ്ട് പോവേം ചെയ്യും പിന്നെ മറ്റൊരു കുരുവി തേൻകുരുവി ഹമ്മിങ്ങ് ബേഡ് അതും മിറ്റത്ത് പൂക്കൾലക്കെ തേൻ കുടിക്കാനായിട്ട് വരാറുണ്ട് അത് അതിനൊരു പ്രത്യേകതാന്ന് പറഞ്ഞാൽ അതിങ്ങനെ പുറകിലേക്ക് പറക്കാനായിട്ടതിന് സാധിക്കും പല തരത്തിലുള്ള തേൻകുരുവിയുണ്ട് കളറിലും ചുണ്ടിൻ്റെ വലിപ്പത്തിലും വ്യത്യസ്തതയിലക്കെ ആയിട്ടുള്ളത് ഇതിൻ്റെ ചുണ്ട് തേൻ കുടിക്കാൻ സൗകര്യത്തിനിങ്ങനെ നീണ്ട് മെലിഞ്ഞിരിക്കും അങ്ങനൊത്തിരി പക്ഷികളിവിടെത്താറുണ്ട്